ആ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി പറയുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ചു ഈ ഒരു കാലഘട്ടത്ത് ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതായത് ഉദാഹരണത്തിന് നമ്മൾ അവർ ഇപ്പം പുറത്തിറങ്ങുന്ന കാര്യത്തിലായാലും മറ്റു മനുഷ്യർക്ക് അല്ലേ മറ്റു മനുഷ്യരുള്ള മറ്റു പുരുഷന്മാർക്ക് പുറത്തിറങ്ങുന്ന അത്ര സ്വാതന്ത്ര്യത്തോടെ സ്ത്രീകൾ ഇവിടെ പുറത്തിറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യത്ത് നാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം പല ആളുകൾക്കിടയിലും അത് സ്ത്രീകൾ പുറത്തിറാങ്ങാൻ അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നവർ ഉണ്ട് അതായത് സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടവരാണ് എന്നാണ് ഞാനും പറയുക കാരണം പക്ഷെ എന്ത് പുറത്തിറങ്ങുമ്പോൾ അവർ അവരുടെ ഒരു മാന്യത എന്ത് മാനിച്ചു കൊണ്ട് പുറത്തിറങ്ങണം അതായത് ഒരു തണിമത്തൻ മുറിച്ചു വച്ചാൽ നമ്മൾ എന്തു ചെയ്യും ആ അതിൽ ഈച്ചകൾ വന്നിരിക്കുമല്ലോ അതുപോലെ ഒരു ആ ഒരു മാന്യത പാലിച്ചു കൊണ്ട് പുറത്തിറങ്ങണമെന്ന് മാത്രമാണ് ഈ ഒരു വെല്ലുവിളികളെ പറ്റി പറയുമ്പോൾ പറയാനുള്ളത് പിന്നെ

പങ്കാളിത്തം മാത്രമേ സ്ത്രീകൾക്ക് ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം അവര്ക്ക് ധാരാളം പരിമിധി ലിമിറ്റുകൾ ഉണ്ടായിരുന്നു നേര മറിച്ചു സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ കാലത്തും അതിൻ്റെ ശേഷമൊക്കെ സ്ത്രീകൾക്കുള്ള പരിഗണകൾ കൂടിയിട്ടേയുള്ളൂ ഈ ഇന്ത്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഏതൊരു രീതിയിലും റാണി ലക്ഷ്മിബായി പോലെയുള്ള ധാരാളം സ്ത്രീകൾ അത് ഇന്ത്യൻ സ്വാതന്തൃ സമരത്തിൽ പങ്കെടുത്തവരെ നമുക്ക് പേരുകൾ എണ്ണിച്ചേർക്കാവുന്നതാണ് അതുപോലെ ധാരാളം സ്ത്രീകൾ ഇന്ത്യയിലും ഉണ്ട് അതിന് ശേഷം ഇന്ദിരഗാന്ധി ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നൊക്കെ പറയുന്ന ഇന്ദിരാഗാന്ധിയ ഇന്ദിരാ ഗാഗാന്ധിയെ കണ്ടു മോട്ടിവേഷൻ മോട്ടിവേഷൻ ആയിക്കൊണ്ടും ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വരുന്ന അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇന്ത്യയിൽ സ്ത്രീകൾക്കുള്ള പങ്കുകൾ വളരെയധികം അധികരിച്ചു ഇന്ത്യയുടെ ഈ ചരിത്രത്തിൽ സ്ത്രീകൾക്കുള്ള പങ്ക് ധാരാളമുണ്ട് പിന്നെ സുരക്ഷിതത്വം ഇന്ത്യയിൽ അനുഭവിക്കുന്നുണ്ടന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഓരോ പത്തൊമ്പത് സെക്കൻഡിലും ഓരോ റേപ്പ് കേസ് ഓരോ പത്തൊമ്പത് മിനിറ്റിലും ഓരോ റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അതും റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ മാത്രമാണ് ഓരോ പത്തൊമ്പത് മിനിറ്റിലും വന്നു കൊണ്ടിരിക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യാത്ത എത്രമേലുണ്ടെന്ന് നമുക്ക് അറിയില്ല കാരണം അത്രമേൽ ബുദ്ധിമുട്ടിലൂടെയാണ് പല സ്ത്രീകളും ഇപ്പോൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പിന്നെ വിദ്യാഭ്യാസത്തി ഇതുപോലെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് നിങ്ങളൊക്കെ കരുതുന്നുണ്ടോെ ഉറപ്പായും കാരണം എന്ത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വിദ്യ പുരുഷന്മാർക്കും വിദ്യാഭാസത്തിൻ്റെ കാര്യത്തിൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യത്തിൽ എത്രമേൽ മുൻഗണന ലഭിക്കുന്നു മറ്റു രാജ്യങ്ങളെക്കാളും മുൻഗണന ലഭിക്കുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കും പണ്ട് കാലങ്ങളെ പോലെയായിരുന്നില്ല കാരണം പണ്ട് കാലങ്ങളിൽ വിദ്യാഭ്യസത്തിന് നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പിഴമതികൾ ഉണ്ടായിരുന്നു എങ്കിലും ഇക്കാലങ്ങളിൽ സ്ത്രീകൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം അടിസ്ഥാന ആവശ്യങ്ങൾക്കും വളരെയധികം പരിഗണന നൽകുന്നുണ്ടെന്ന് നമുക്ക് ഇന്ന് ഏതൊരു മനുഷ്യന് തൻ്റെ ബാഹ്യമായ കണ്ണിലൂടെ തന്നെ കാണൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചു പണ്ട് കാലങ്ങാളിൽ ഒരു നിശ്ചിത പ്രായമായ ഒരു ഒരു ഏകദേശം സ്ത്രീക്ക് ഒരു പതിനെട്ട് വയസുകൾക്ക് മുന്നേ തന്നെ കെട്ടിച്ചയക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു എങ്കിൽ ഈ ഒരു കാലങ്ങളിൽ അത് അതിൻ്റെ സിസ്റ്റം മാറി അ കാരണം അവർക്ക് എല്ലാ സ്ത്രീകളും പഠിച്ചു വിദ്യാഭ്യാസമായി ഒരു ജോലി നേടിയതിന് ശേഷമാണ് കേരളത്തിലും ഇന്ത്യയിലുമുള്ള അധികം സ്ത്രീകളും കെട്ടിച്ചയക്കുന്നത് ഭർത്താവിൻ്റെ വീട്കളിലേക്കെല്ലാം അയക്കുന്നത്